ആഗ്രഹം തോന്നിയിട്ട് ബുദ്ധിമുട്ട് മൂലം ശ്രമിച്ച് നോക്കാത്ത കാര്യം ഒന്ന് പാചകം തന്നെയാണ് കാരണമെന്താ വച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് നമ്മളതിനകത്ത് പാചകത്തിലേക്ക് അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൂടുതലായാലും മോശമായിപ്പോവും കുറവാണെങ്കിലും മോശമായിപ്പോവും അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഉപ്പ് ഒരു കറിയിൽ ഒരു ഉപ്പ് ഇടുകയാണെന്ന് വിചാരിക്കുക ആ ഉപ്പ് ഇടുമ്പം അത് കൂടുതലായിട്ടുണ്ടെങ്കിൽ ആ കറി നാശമായിപ്പോവും അതുപോലെതന്നെ കുറവ് ഇട്ടാലും അത് നാശമായിപ്പോയ് അപ്പോൾ പിന്നെ നമ്മൾ പാകത്തിനനുസരിച്ച് ചെയ്യാൻപ്പറ്റുള്ളൂ അപ്പം എത്ര ശ്രമിച്ചിട്ടും അതൊരു നേക്കിൽ കൊണ്ടുപോവാൻ പറ്റാത്തതുകൊണ്ട് അത് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി എന്നിട്ട് ആ ബുദ്ധിമുട്ട്പോലെ ആ ശ്രമം ഇതാക്കി പിന്നെ അത് പാചകം എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ട് തോന്നുന്നതെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇത് തന്നെയാണ് ഈ പൊടികളിടുന്നതും അതൊക്കെ കൊണ്ട് തന്നെയാണ് പിന്നെ നമുക്ക് ഒന്നാമത് ചെറിയൊരു മടിയുണ്ടാകും ഇത് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടേസ്റ്റ് ഉണ്ടാകുമോ അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്ത കൊണ്ടാണ് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്